എൻ്റെ ജീവിതത്തിലെന്നെ സ്വ സ്വാധീനിച്ചുള്ള സ്വാധിച്ചി ഒരാളാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഒരുപാടധികം സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം ഒരുപാട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം പത്രം വിറ്റും പത്രം വിറ്റതിനു ശേഷം സ്കൂളില് പോയി പഠിച്ച് അഡ്വക്കേറ്റായി മാറിയ ഒരാളായിരുന്നു വി കാൻ എ വി കാൻ എ വിങ്സ് ടു ഫ്ലൈയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിംഗ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുമുണ്ട് അതിലൂടെയെനിക്ക് ഒരുപാട് അറിവ് ലഭിച്ചിട്ടുമുണ്ട് അതുപോലെതന്നെ മറ്റൊരു ശാസ്ത്രജ്ഞൻ ഗണിത ശാസ്ത്രജ്ഞനാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹമാണ് മാക്സ് എന്ന ഗണിത ലോകത്തെ കണ്ടുപിടിച്ചത് തന്നെ സീറോ ഈസ് നോട്ട് എ ജി ഡിജിറ്റ് ഇട്ടീസെ നമ്പർ ഓഫ് പവറാണ് സീറോയ്ക്ക് മുമ്പിലിട്ടാല് വാല്യൂവും പുറകിലിട്ടാല് വാല്യൂവുമുണ്ടെന്ന് വ്യക്തിത്വം സത്യം നം മനസ്സിലാകണം മാക്സ് ഈസ് നോട്ട് എ പവർ ഇറ്റ്സ് ഏന് ഇമാജിനേഷൻ എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടുതന്നെ ഗണിത ശാസ്ത്രലോകത്തെ മനസ്സിലാക്കാൻ നമക്കെപ്പോഴും കഴിയണം ഗണിതശാസ്ത്രത്തിൽ എന്നെ ബ സ്വാധീനിച്ച ഒരാൾ അരിസ്റ്റോട്ടിലും ശാസ്ത്ര ലോക നിച്ചൊരാളാണ് അബ്ദുൽ കലാം അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാടധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതത്തെ ഒരുപാട് മുന്നോട്ട് നയിക്കുവാനും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചെ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളിൽ പോലും മുന്നോട്ട് നയിക്കാനദ്ദേഹം സാധിച്ചിരുന്നു എന്തോ പിന്നെ ഒരുപാടൊരുപാട് ശാസ്ത്രജ്ഞർ നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നവരാണ് എൻ്റെ മനസ്സിലിപ്പോള് ആദ്യം ഓടിയെത്തുക ഒരു സാ ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിലേക്കാദ്യമെത്തുന്ന ഒരു വ്യക്തിത്വം എ പി ജെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഏത് രീതിയിലും അങ്ങേത്തെ വിശേഷിപ്പിക്കാൻ കാര്യം പറ്റും കാര്യം അദ്ദേഹം അതുപോലെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആ വ്യക്തിത്വത്തെ നാം മനസിലാക്കണം